വീട്ടിലും അതുപോലെ ഈ പ്രദേശത്തൊക്കെ വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ട് ആ നമ്മള് ഇപ്പോൾ മഴവെളളമാണങ്കിൽ മഴവെള്ളം നമ്മ ഡ്രമ്മ് വച്ചിട്ടല്ലങ്കിൽ ടാങ്ക് വച്ചിട്ട് പിടിക്കാറാണ് പതിവ് അതേപോലെ ഇതിന് തുണീണ്ടല്ലോ തുണി ഈ തുണി മുകളില് വയ്ക്കും ഡ്രമ്മിൻ്റെ ഡ്രമ്മിൻ്റെ മുകളില് വച്ചിട്ട് ഈ വരണ വെള്ളം ട്രേയിന്ന് വരുന്ന വെള്ളം ഇതില് വന്ന് വീഴും ആ തുണിക്കൂടെ തുണീല് എന്ത് ചെയ്യും പൊടി അംശങ്ങളും അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തുണിയിൽ നിന്നിട്ട് വെള്ളം അടീല് വരും അങ്ങനെ തുണി വെച്ചിട്ടാണ് അരിക്കാറ് പിന്നെ ഇത്തിരിച്ചേ കലങ്ങിയ വെള്ളമൊക്കെ ആണെങ്കില് തെളപ്പിച്ചിട്ട് ആവി മോളിലേക്ക് പോകുന്ന ആവി പിടിച്ചിട്ട് നമ്മള് പാത്രത്തില് ആക്കിട്ട് ആവി ഉണ്ടാക്കുന്ന ആ വെള്ളം ആവി വെള്ളം നല്ല ശുദ്ധമായ വെള്ളായിരിക്കും അപ്പം ആ ആവി എടുത്തിട്ട് നമ്മള് ചെയ്യാറുണ്ട് പിന്നൊന്ന് എന്ന് വെച്ചാൽ നമ്മള് വെള്ളം ഊറാൻ വക്കും ഊറാൻ വക്കുന്ന് പറയുമ്പോൾ നമ്മൾ പാത്രത്തിലാക്കിയിട്ട് അവിടെ വയ്ക്കും എന്നിട്ടൊരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ചളി അടിഞ്ഞ് അടിലാവും തെളിമയുള്ള വെള്ളം മുകളിലാവും അതും യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള രീതികളൊക്കെയാണ് പൊതുവേ പ്രദേശങ്ങളിലും വീട്ടിലുമൊക്കെ ചെയ്യാറുള്ളത്